ഈ മത്സ്യബന്ധനത്തിനു പോകാൻ പ്രത്യേകം കാര്യം പറയാനുള്ളത് അതായത് നമ്മുടെ ഏറ്റവും വലിയ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് മൽസ്യം അപ്പം മൽസ്യം നമ്മൾ പിടിച്ചുകഴിഞ്ഞാൽ കടലിലൊക്കെ പോയി മുക്കുവന്മാർ ദിവസങ്ങളോളം കടലിൽ കഴിഞ്ഞതിനുശേഷമാണ് കരയ്ക്കടുക്കുന്നത് ഈ സമയത്തൊന്നും അതിന് അതായത് പിന്നെ അതായത് രാസവസ്തുക്കൾ ചേർത്ത് പിന്നെ മരുന്ന് മീൻ മൽസ്യം കൂടുതൽ നാൾ പഴകാതിരിക്കാനായിട്ട് ചെയ്യുന്നുണ്ട് അതൊരിക്കലും ജനദ്രോഹമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ചെയ്യാത്തവരും ഉണ്ട് എങ്കിൽപ്പോലും എല്ലാ മൽസ്യത്തിനും ഇങ്ങനെ ഉണ്ടാകുമെന്നുള്ള മിഥ്യാധാരണ തെറ്റിദ്ധാരണ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ട് ഇവയാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം